സ്കൂളുകളിലും കോളേജുകളിലും എന്തെങ്കിലും ഫങ്ങ്ഷൻ വരുമ്പോഴും ഗാനമേളകളിലും പിന്നെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഫാമിലി ഫങ്ങ്ഷൻ വരുമ്പോഴും പള്ളിയിൽ കൊയറിൽ പാടുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് പാടുവാൻ ആയിട്ട് കൂടുതൽ ആഗ്രഹങ്ങൾ കൂടുതലായിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും മത്സരങ്ങൾക്കൊക്കെ പാടുന്നതിനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് കൂടുതലും പാടുന്നത് പള്ളിയില് മറ്റ് വീട്ടിലെ ഫങ്ങ്ഷനും ഗാനം ആ പിന്നെ എന്തേലും ഗാനമേള അങ്ങനെ എന്തേലും വരുമ്പോൾ ചെറിയ ചെറിയ ഫങ്ങ്ഷനും പിന്നെ വീട്ടിൻറ്റെ പള്ളിയിലോ മറ്റു പുറമെ വെച്ച് നടത്തുന്ന ഫങ്ങ്ഷൻസിലും ഇതിലൊക്കെയാണ് കൂടുതലും പാടുവനായിട്ട് ആഗ്രഹിക്കുന്നത് പാടുന്നതില്ത്തന്നെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ആ സിറ്റുവേഷൻസ് നോക്കി ആയിരിക്കും പാടുന്നത് പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ട് പാടുവാൻ ആയിട്ട് ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ളതെന്ന് പറയുന്നത് കല്യാണം ഫ്രണ്ട്സിൻറ്റെ കല്യാണം മറ്റ് എന്തേലും റിലേറ്റീവ്സിൻറ്റെ കല്യാണം അങ്ങനെയുള്ള സാഹചര്യങ്ങളില് പാടുവാനായിട്ടുള്ള ആഗ്രഹം ആഗ്രഹിക്കാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ പാടുന്നതായിട്ടും അങ്ങനെയാണ് പാടം പാടുന്നത് ആയിട്ട് കാണുന്നത്